ഞങ്ങളുടെ പ്രദേശത്ത് സംസാരിക്കുന്ന ഭാഷയെന്നു പറയുന്നത് മലയാളമാണ് ഇന്നത്തെക്കാലത്ത് മലയാളം സംസാരിക്കാൻ അപമാനം അപമാനം ആയിട്ട് കാണുന്നവർ ഒരു തലമുറയാണ് ഇന്നുള്ളത് മലയാള ഭാഷയെ ഒരപമാനമായിട്ട് കാണുന്ന ഒരുപാട് പേര് ഇന്ന് സമൂഹത്തുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചെടത്തോളം ഒരു മലയാളി ആയതിൽ അല്ലെങ്കിൽ മലയാള ഭാഷ അറിയുന്നതിൽ ഞാൻ തീർത്തും അഭിമാനിക്കുന്നുണ്ട് കാരണം എല്ലാ ലാംഗ്വേജസിനെ വച്ച് എല്ലാ ലാംഗ്വേജസിനെ വച്ച് നോക്കുമ്പോഴും ഏറ്റവും ബുദ്ധിമുട്ട് ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയെന്നു പറയുന്നത് മലയാളമാണ് മലയാളം പഠിക്കാനാണ് ഏറ്റവും ബുദ്ധിട്ടെന്നാണ് എല്ലാവരും തന്നെ പറയുന്നത് അപ്പം അങ്ങനെയൊരു ഭാഷ എൻ്റെ ഒരു മാതൃഭാഷ ആയതിൽ അത് ഇത്ര ഫ്ലുവെൻ്റായിട്ട് സംസാരിക്കാനും അതിൽ നിൽക്കാൻ സാധിച്ചതിലും എല്ലാം ഞാൻ വളരെയധികം സന്തോഷിക്കാറുണ്ട് അതുപോലെതന്നെ ഇന്ന് പഠനത്തിനും ജോലിക്കുമെല്ലാം വേണ്ടിയിട്ട് കുട്ടികൾ പല പല ഭാഷകൾ പഠിക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പോലും ഒരു ജർമ്മൻ ഭാഷ പഠിക്കുന്ന വിദ്യാർഥിനിയാണ് ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിക്കു പോകണം എന്നൊരിതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം ഇന്നത്തെക്കാലത്ത് മറ്റു ഭാഷകൾ പഠിച്ച് പുറത്തേക്ക് പോയി അവിടെ ജോലി ചെയ്ത് അവിടെ പഠിച്ച് ജോലി ചെയ്യാൻ ഒരവസരം എന്നു പറയുന്നത് കൂടുതലും ഉള്ളൊരു സമയമാണ് അവിടെ പഠിച്ച് അവിടെ ജോലി ചെയ്താൽ അവർ അതിനനുസരിച്ച് പൈസ കിട്ടും എന്നറിയുന്നത് കൊണ്ടുതന്നെ ഒരുപാടു പേരതിനു ശ്രമിക്കുന്നുണ്ട് അപ്പം ഇന്ന് പുതിയ പുതിയ ഭാഷകളായിട്ട് ഓരോന്ന് പഠിച്ച് പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതൽ തന്നെയാണ് പിന്നെ മാതൃഭാഷയോട് സംസാരിക്കാൻ ഒരു മടുപ്പ് തോന്നിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽപ്പോയി മലയാളിയാണെന്നു പറയാൻ മടിയുള്ള ഒരുപാട് പേര് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലുണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയെന്നു പറയുന്നത് മലയാളവും ഇംഗ്ലീഷുമാണ് ഇംഗ്ലീഷ് എന്നു പറയുന്നത് പഠനത്തിനും ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാവരും പഠിക്കുന്നൊരു ഭാഷയാണ് അതിപ്പം എൽ കെ ജി തൊട്ടാണെങ്കിലും പിന്നെ എത്രകാലം പഠിച്ചാലും ഇംഗ്ലീഷ് എന്നു പറയുന്നത് ഒരു ഒരു ഉപഭാഷയായിട്ട് ഇങ്ങനെ കൂടെ കൊണ്ടുനടക്കുന്ന ഒരു ഭാഷ തന്നെയാണ്